മത്സ്യബന്ധനം അത് ഒരു രസകരമെന്ന് പറയുന്നത് ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾ ഇതിപ്പം ഒരു ഞാൻ ഐ ടി ഫീൽഡാണ് ഐ ടി ഫീൽഡിൽ വർക്ക് വരുന്ന ചെയ്യുന്ന ഒരാൾ ഒരാളുടെ സ്ട്രെസ്സും അവരെ ടെൻഷനും അത് ഇത്ര സമയം കൊണ്ട് ചെയ്തു തീര്ക്കണം അത് ലോഗിൻ ചെയ്യണം ലോഗൗട്ട് ആക്കണം അതിൻ്റെ ഓരോരോ ടെൻഷെൻസും ഫസ്ട്രേഷനും എല്ലാം ആലോജിച്ചിരുന്നു ചെയ്യുന്ന ഒരു വർക്ക് ആയിരിക്കും ചിലപ്പോൾ ഐ റ്റി കമ്പനിയെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ഹോട്ടൽ പണിയാണെങ്കിൽ അതും അതേപോലെ തന്നെയാണ് ഇത്ര മണിക്ക് ഫുഡ് ആക്കണം അത് എത്തിച്ചു കൊടുക്കണം അത് ഡെലിവെറ് ചെയ്യണം അത് ഓരോ ഓരോ ഒരു ടെൻഷൻസ് ആണ് പൈസ കിട്ടിയോ പൈസ കയറിയോ പൈസ തീരുമോ അങ്ങനെയുള്ള ഓരോ ഓരോ ടെൻഷൻ പിന്നെ ഇപ്പം ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ ഇത്ര സമയം കൊണ്ടു അത് ചെയ്തു തീർക്കണം അങ്ങനെയുള്ള ഒരു ഇത് മത്സ്യബന്ധനം എന്നുള്ളത് രസകരം തന്നെ ആയിരിക്കാം കാരണം കുറേ ഈ എന്താണ് പറയുക കുറേ ആൾക്കാർ വേണ്ടിയിട്ട് കൂടിച്ചേർന്ന ഒന്നു തന്നെയാണ് കുറേ പേര് ഉണ്ടാവും ആ ഒരു സംഭവം ആ ഒരു പണിക്ക് അപ്പോൾ കടലിലേക്ക് പോയി കടലിൽ ഓരോ ഓരോ ഇങ്ങനെ അവർ പാട്ട് പാടുന്ന ഓരോ പാട്ടുകൾ പാടി കുറേ മീനുകളെയൊക്കെ പിടിച്ചു വൈകുന്നേരം അത് വന്നു വിറ്റ് ചിലവാക്കി ചിലപ്പം ചാകര കിട്ടുന്നവരെ ഭാഷയിൽ പറയുന്നത് ചാകരയാണ് അതെക്കെ അതൊക്കെ വളരെ രസമായിട്ട് എനിക്ക് ഇതൊന്നും കാരണം എല്ലാ തൊഴിലുകളിൽ നിന്നും അത് ഒരുപക്ഷെ ഒരു ഇത് കഴിഞ്ഞാൽ ഭയങ്കര എന്താണ് നല്ല ഒരു സന്തോഷം തരുന്നു ഉളവാക്കുന്നത് തന്നെയായിരിക്കാം മത്സ്യബന്ധനം എന്നു പറയുന്നത്